നമ്മുടെ പ്രദേശത്ത് പരമ്പരാഗതമായി കളിച്ച് വരുന്നൊരു പ്രധാനകളിയാണ് വടംവലിയെന്ന് പറയുന്നത് ആഘോഷങ്ങളോട് അനുബന്ധിച്ചും ഫാമിലി ഫംഗ്ഷൻ അങ്ങനെയൊക്കെയാണ് ഇത് പ്രധാനമായും കളിക്കുന്നത് ഓണം അങ്ങനെ ആഘോഷസമയങ്ങളിലാണ് ഇത് കൂടുതലും നടത്തപ്പെടുന്നത് എന്നുപറഞ്ഞാൽ ഒരു വടം ഉപയോഗിച്ച് രണ്ട് ടീമുകളായി തിരിയുകയും അവർ പരസ്പരം തങ്ങളുടെ ഭാഗത്തേക്ക് കൂടുതൽ എതിർടീമിനെ വലിച്ച് അടുപ്പിക്കുകയും ചെയ്യുകയും അങ്ങനെയാണ് ഈ കളികളിക്കുന്നത് പിന്നെ മറ്റൊരു പരമ്പരാഗതകളിയാണ് കമുകിൽ കയറ്റമെന്ന് പറയുന്നത് കമുകിൽ കയറ്റം ഇതും ഓണത്തോടനുബന്ധിച്ചാണ് നടത്തപ്പെടുന്നത് ഇത് ഒരു കമുകൊരു ഒറ്റത്തടി വൃക്ഷമാണല്ലോ അപ്പോൾ അതിനെ ഒരു സ്ഥലത്ത് പ്ലെയിസ് ചെയ്യുകയും അതിലൊരുപാട് ഓയില് എഗ്ഗ് ഇവയെല്ലാം ഇടുകയും എന്നിട്ടിതിൻ്റെ മുകളിലായിട്ടൊരു കൊടി സ്ഥാപിക്കുക ചെയ്യുന്നു ഏറ്റവും ആദ്യം അതിൽ കയറി മുകളിലേക്ക് കൊടിയെടുക്കുന്ന ആളതിൽ വിൻ ചെയ്യുന്നു ഇവയൊക്കെയാണ് നമ്മുടെ പ്രദേശത്ത് കണ്ടുവരുന്ന പരമ്പരാഗതകളികളെന്ന് പറയുന്നത്